ഞാൻ ചെറുപ്പം തൊട്ടേ വീഡിയോ ഗെയിമുകൾ കളിക്കുന്ന ഒരാളാണ് ആദ്യമായി ഞാൻ കളിച്ചത് ഒരു ചെറിയ ഒരു ഹെലികോപ്റ്റർ പറത്തി കളിക്കുന്ന ഒരു ഗെയിം ആയിരുന്നു ഞാൻ ആദ്യമായി കളിച്ചത് പിന്നീട് വേറെ ഒട്ടനവധി ഗെയിമുകൾ കളിച്ചു ഒന്ന് ഫ്രീഡം ഫൈറ്റേഴ്സ്ന്ന് പറഞ്ഞ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഫ്രീഡം ഫൈറ്റേസിൽ എന്താണെന്ന് വച്ചാൽ നമ്മൾ ജനറൽ ടാർടാറിങ്ങെന്ന് പറഞ്ഞിട്ട് ഒരു ദുഷ്ടനായൊരു ഒരു ജനറൽ ഉണ്ടായിരുന്നു ഒരു ആർമി ജനറൽ പുള്ളിയെ വധിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കഥയാണ് അ ഗെയിമിൽ നടക്കുന്നത് അത് ഒരുപാട് നല്ല ഒരു ഗെയ്മായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഒരു ഇപ്പോൾ ഗെയിമെന്ന് പറയുമ്പോൾ അതിൽ ഓപ്പൺ വേൾഡ് ഗെയിമുകളുണ്ട് അങ്ങനെ പലതരമുണ്ട് ഓപ്പൺ വേൾഡ് ഗെയിമുകളുടെ പ്രത്യേകത എന്താണെന്ന് വച്ചാൽ നമുക്ക് അതിലുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ചുറ്റി കാണാം അങ്ങനെ പല പല കാര്യങ്ങൾ

അ ഗെയിമ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഗെയിമാണ് കാരണം അതിൽ നമ്മൾക്ക് വണ്ടിയോടിച്ച് ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി കറങ്ങാം അതിൽ ഒരുപാട് ഐലൻ്റുകളുണ്ട് ഇപ്പം നമ്മൾക്ക് ഇ ഐലൻഡൊക്കെ എക്സ്പ്ലോർ ചെയ്യാം അവിടെ ഇവിടെ ഒക്കെ ചുറ്റി കാണാം പല പല കാര്യങ്ങൾ ചെയ്യാം അത് ഒരു അടിപൊളി ഗെയിമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഓപ്പൺ വേൾഡ് ഗെയിമുകളുടെ ലോകത്തേക്ക് എത്തി എത്തിപ്പെട്ടത് പിന്നെ അത് കഴിഞ്ഞ് അത് പോലത്തെ ഈ ഒരുപാട് ഗെയിമുകൾ കളിക്കുക ഉണ്ടായി ഇപ്പോൾ ജി ടി എ വൈസ് സിറ്റിയുടെ തന്നെ പിൻഗാമി ആയിട്ടുള്ള ഗെയിമാണ് ജി ടി എ സനാൻഡ്രിയസ് അത് എനിക്ക് ഇതിനേക്കാളും ഒരുപാട് ഇഷ്ടപെട്ട ഒരു ഗെയിമാണ് അത് കാരണം അതിൽ ജി ടി എ വൈസ് സിറ്റിയിൽ കളിക്കുന്ന അത് അ സ്ഥലത്തേക്കാളും ഒരുപാട് മടങ്ങ് വലിയ ഒരു മാപ്പാണ് അ ഗെയ്മിൽ നമുക്ക് കളിക്കാനായിട്ടുള്ളത് അതിൽ ഒരുപാട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും അപ്പോൾ ഇത്തരം ഗെയിമുകളൊക്കെ ഞാൻ പണ്ട് തൊട്ടെ ഒരു പാട് കളിക്കുമായിരുന്നു മെയിൻ ഇങ്ങനെ ഗെയിം കളിക്കുമ്പോൾ ഒരു പ്രധാന ഒരു ഉപയോഗം എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തതിൽ ഒരു യാഥാർത്ഥ്യങ്ങളെ മടുക്കുമ്പോൾ നമുക്ക് ഗെയ്മിൻ്റെ ലോകത്തേക്ക് രക്ഷപ്പെടാം എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ അപ്പോ അങ്ങനെ ഒരുപാട് ഗെയിമുകൾ കളിക്കുക ഉണ്ടായി ഇപ്പോൾ ഇപ്പം പറഞ്ഞ ജി ടി എ സനാൻഡ്രിയസിന് തന്നെ പിന്നെയും ഒരു പാട് പിൻഗാമികൾ വന്നു ഇപ്പോൾ അവസാനമായി ജി ടി എ ഫൈവ് എന്ന ഗെയിമിൽ എത്തിയിരിക്കുന്നു അതിലും ഇത് പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗെയിമ് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും റെഡ് ഡെഡ് റിഡപ്ഷൻ റ്റു എന്ന ഗെയിമാണ് അതിലും അതും ഇത് പോലെ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ് അതിൽ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് വലിയൊരു മാപ്പാണ് അതിൽ നമുക്ക് കളിക്കാനായി കിടക്കുന്നത് ഒരു അതിൽ നമുക്ക് അത് കുറച്ച് പണ്ട് കാലത്ത് നടക്കുന്ന ഗെയിമായിട്ടാണ് അതാണ് എന്നെ ഈ ഗെയിമിലേക്ക് ആകർഷിക്കാൻ മറ്റൊരു കാര്യം നമുക്ക് പരിചയമില്ലാത്ത നൂറ്റാണ്ടുകൾ മുമ്പുള്ള ഒരു കാലമാണ് ആ ഗയിമിൽ നടക്കുന്നത് അപ്പം നമുക്ക് അതിൽ കുതിരയെ ഓടിച്ച് നടക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് ആ ഗയിമിൽ ഉള്ള വഴികൂടി പോകുന്ന ഓരോ ക്യരക്ടേസിനും ഒരു കഥയുണ്ട് നമ്മൾക്ക് അവരോട് സംസാരിക്കാം അവരുമായിട്ട് ഇടപഴകാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഓപ്പൺ വേൾഡ് അല്ലാത്ത ഗെയ്മുകളും നമ്മൾ കളിക്കാറുണ്ട് മൈൻഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗെയിമുണ്ട് അത് നമ്മുടെ നമ്മൾ ഒരുപാട് ചിന്തിപ്പിക്കുകയും നമ്മുടെ നമ്മുടെ സാങ്കൽപ്പിക ശക്തിയെ ഒരുപാട് ഉണർത്തുകയും ചെയ്യുന്ന ഒരു ഗെയ്മായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ മൈൻ ഈ മൈൻക്രാഫ്റ്റാണെങ്കിൽ തന്നെ ചില രാജ്യങ്ങളിൽ കിൻ്റർഗാർഡൺ ലെവലിലൊക്കെ കുട്ടികളെ അത് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ അങ്ങനത്തെ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട് അത് ഒരു വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ അപ്പോൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അതിലേക്ക് ബാക്കിയുള്ള പഠനങ്ങളിലൊന്നും ശ്രദ്ധ തെറ്റാതെ ഒരു ഒരു ബാലൻസ് ആയിട്ട് കൊണ്ട് പോവുകയാണെങ്കിൽ വീഡിയോ ഗെയിമുകൾ കളിക്കുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല